ഹലോ ആ ഗുഡ് ഈവനിംഗ് ആ ആ ആ ആ എവിടുന്നാ വിളിക്കുന്നത് ആ ആ ആ ഇത് മൊബൈൽ ഷോപ്പ് ആണേ മ്മ് ആ ആ ആ എന്ത് ഫോണാ ആ ഹാ

ആ എല്ലാ ടൈപ്പും ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട് ഇവിടെ മാം എന്ത് ഏത് ഏത് ടൈപ്പ് ഏത് എത്ര വിലയുടെ ഒക്കെയാ ഉദ്ദേശിക്കുന്നത്

നമുക്ക് ടച്ച് ഫോൺ നമുക്ക് ഇപ്പം പതിനഞ്ച് പയിനയ്യായിരം പതിനാല് അങ്ങനെ ഇരുപത് അമ്പതിനായിരം ഒരു ലക്ഷത്തിൻ്റെ ഒക്കെ വരെയൊക്കെ ഉണ്ട് മ്മ് ആ അപ്പം ഏ എ സാംസംഗിൻ്റ നല്ലതാണ് പിന്നെ ഇപ്പോൾ നല്ലതാ വിവോ എല്ലാം നല്ലതാ ആ എല്ലാതും ആ പത്തിൻ്റെ ഉണ്ട് പതിനയ്യായിരത്തിൻ്റെ ഉണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് അങ്ങനെ ട്വൽവ് ട്വൻറ്റി ഫൈവ് അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പോൾ സാംസംഗ് ഒത്തിരി പോവുന്നതാ സാംസംഗ് നല്ലതാ ആ സാംസംഗിൻ്റ ഉപയോഗിച്ചിട്ടുണ്ടോ നേരത്തെ നേരത്തെ ഏത് ഫോണാ ഉപയോഗിച്ചേക്കണെ

ആ വിവോ നല്ലതാ ഒപ്പോ പ്പോയും നല്ലതാ പിന്നെ അങ്ങനെ മാറ്റി ഫോൺ യൂസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വിവോയോ അല്ലെങ്കിൽ ഒപ്പോയോ ഏതെങ്കിലും നോക്കാം ആ ഒത്തിരി ആ ഒത്തിരി നമുക്ക് ചെലവ് വിറ്റ് ആയി പോവുന്നത് സാംസംഗ് ആണ്

സാംസംഗിൻ്റെ ഒരു പത്തിൻ്റെ ഉണ്ട് പന്ത്രണ്ട് പതിനഞ്ച് അങ്ങനെ പോവുന്നു റേഞ്ച് നമുക്ക് ഫൈനാൻഷ്യലി നോക്കുമ്പം അഫോർഡബിൾ ആണെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ ഒക്കെ എടുക്കാം ഇരുപതിൻ്റെ അല്ലെങ്കിൽ പതിനേഴ് ഇരുപതിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ഒക്കെ കുഴപ്പം ഇല്ല ഫൈനാൻഷ്യലി ആ മ്മ്

ആ ആ ഇൻസ്റ്റോൾമെൻറ്റ് കൊടുക്കും ആ ഉണ്ട് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഇപ്പം ഇരുപത്തിനായിരത്തിൻ്റെ ആണേ മാസം അപ്പം മാസം ഒരു ആയിരത്തിയഞ്ഞൂറ് വെച്ച് അടച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ അപ്പം ആ ആ പന്ത്രണ്ട് മാസത്തേക്ക് പന്ത്രണ്ട് മാസത്ത് ആ ആ ആ ആയിരത്തഞ്ഞൂറ് വെച്ച് ആ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം വേണേ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് വേണേ തരാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി അങ്ങനെ എന്താണ് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നത് അത് വഴി അങ്ങനെ ചെയ്യാം ആ ഉണ്ട് ഉണ്ട് വേറെ ഏതെങ്കിലും ഫോൺ നോക്കുന്നുണ്ടോ അതോ ഇത് മാത്രം മതിയോ

ആ ഐഫോണ് ഉണ്ട് ഐഫോൺ നമുക്ക് ആ അമ്പതിലാ തുടങ്ങുന്നത് അമ്പതിനായിരത്തിൽനിന്നാണ് തുടങ്ങുന്നത് ഐഫോൺ ആപ്പിൾൻ്റെ ഉണ്ട് ആപ്പിൾൻ്റെ നല്ലതാ ആപ്പിൾൻ്റെ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നത്

പിന്നെ ഐഫോണ് ഒക്കെ ഒത്തിരി പോവുന്നുണ്ട് ആ ഹാ ആ ഹാ ആ ആ ഇല്ല ഇത് നൈറ്റ് നമുക്ക് ഒമ്പത് മണി വരെ ഉള്ളൂ ഷോപ്പ് നൈറ്റേ ഒമ്പത് മണി വരെ ഉള്ള രാവില പത്ത് മണിയാവുമ്പേക്കും തുറക്കും ആ ആദ്യം പേയ്മെൻറ്റ് നടത്താം നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു അയ്യായിരം രൂപയെങ്കിലും തരണം അഡ്വാൻസ് ആയിട്ട് ആ ആ അയ്യായിരം തരണം ആ അതെ അതെ അതെ അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഫോൺ ചെക്ക് ഒക്കെ ചെയ്യാം അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാലും മതി ഫോണ് ഒക്കേയ് ആ ഗ്യാരണ്ടി കാർഡ് ഒക്കെ അതിൻ്റെ ഒപ്പം തരുമല്ലോ നമ്മൾ ഫോണിന് നമുക്ക് ആ ആ

മാസം മാസം അത് അടച്ചാൽ മതി ആ അയ്യായിരം രൂപക്ക് ഫോൺ ആ ആ അറിയാം അത് എന്നാൽ അത് ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് നിങ്ങൾ നിങ്ങളെ എനിക്ക് അറിയാമല്ലോ ആ ആ ആ അതുതന്നെ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതാ അറിയുന്നത് കൊണ്ട് കാരണം നിങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ അതുകൊണ്ടാ ആ വിശ്വാ ആ ആ കുഴപ്പം ഇല്ല നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയാവുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല ആ ആ ഒരു കൺസേൺ ഉണ്ട് അതുകൊണ്ടാ

ആ ആ ആ

എന്ന് എന്ന് ഞാൻ ദിവസങ്ങൾ ലീവ് ഉണ്ട് അപ്പം അത് എന്നാണ് വരുന്ന തി ഞാൻ തിങ്കളും ബുധനും വ്യാഴവും ലീവ് ആയിരിക്കും അപ്പോൾ ഒരു വെള്ളിയായ്ച്ച വരുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണും ആ എന്നെ എൻ്റെ നമ്പർ അറിയാമല്ലോ എൻ്റെ നമ്പർലോട്ട് ആ ആ വിജി തന്നെയാണോ ആ തന്നെയാണോ വരുന്നത് വേറെ ആരെങ്കിലും കൂടെ കാണുമോ ആ അത് കുഴപ്പം ഇല്ല ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി അപ്പം ഞാൻ അവിടെ അവൈലബിൾ ആകാൻ നോക്കാം ആ ആ ആണ് ഓക്കെ എന്നാൽ ആ ഓക്കെ ആ താങ്ക് യൂ ഓക്കെ ആ വെൽക്കം ആ